ആശുപത്രികളിൽ ഒ പി ലിസ്റ്റ് എടുക്കുന്നത് മുതൽ ഡോക്ടറെ കാണിക്കുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും എല്ലാത്തിനും വളരെയേറെ തിരക്കും നീണ്ട കാത്തിരിപ്പ് സമയവും ഉണ്ടാവലുണ്ട് അവിടെ രോഗികൾക്ക് കാത്തിരുന്ന് അവരുടെ അസുഖം മാറുവാനുള്ള സാധ്യത വളരെയേറെ കുറയുകയാണ് ചെയ്യുന്നത് കാരണം ഒരു രോഗിക്ക് മരുന്ന് കിട്ടുന്നതിന് അത് കുറെ സമയം വൈകുന്തോറും അസുഖം മൂർച്ഛിച്ച് വരികയാണ് ചെയ്യുക അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെന്റ് ആരംഭിച്ചാലല്ലേ അസുഖം മാറി വരികയുള്ളു